രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒൻപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്